ഇന്നത്തെ ചെറുപ്പക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും സർക്കാർജോലി ആഗ്രഹിക്കുന്നു എങ്കിലും എല്ലാ ജനങ്ങൾക്കും സർക്കാർ ജോലി നൽകുവാൻ നമ്മുടെ സർക്കാരിന് സാധിക്കില്ല അതുകൊണ്ടുതന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും വ്യാവസായികം ചെയ്യുന്നവരും സേവനങ്ങൾ ചെയ്യുന്നതും സ്വയം തൊഴിൽ കണ്ടെത്തുന്നവരും കൃഷി ചെയ്യുന്നവരും നമ്മുടെ നാട്ടിലുണ്ട് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തൊഴിൽ കണ്ടെത്തുന്നതിന് നമ്മുടെ സർക്കാർ അവരെ സഹായിക്കുന്നു വയനാട്ടിലെ വയനാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗമാണ് കൃഷിയെന്നത് കൃഷി ഇന്ന് വളരെയേറെ ദുരിതമനുഭവിച്ചുകൊണ്ടാണ് കർഷകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം കൃഷിയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ സാധനങ്ങളും വിളവെടുക്കാനുള്ള സൗകര്യം കൃഷിചെയ്യാൻ കൃഷിക്കാരെ പണിക്കാരെ കിട്ടാത്തതും പിന്നെ വേറെ മൃഗങ്ങളെക്കൊണ്ടുള്ള ശല്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ടുതന്നെ കൃഷിചെയ്യുന്നതിന് ഇന്നത്തെ ചെറുപ്പക്കാർ താല്പര്യപെടുന്നില്ല എല്ലാവരും സർക്കാർ ജോലിയ്ക്കു വേണ്ടിയും കഷ്ടപ്പെടുകയാണ്